ഞങ്ങൾ ഒരു കൂനത്തു വേമ്പനാട്ടു കായലിൻ്റെ തീരത്താണ് കായലിൽ നിന്ന് കിട്ടുന്ന മീനിനാണല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കരിമീനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആവിശ്യക്കാരുള്ളതും കരിമീൻ തന്നെയാണ് അതിന് ഇപ്പം ഇപ്പോഴത്തെ വെലെന്നറ വില ഒരു കൃത്യമായിട്ടില്ല ഇപ്പോൾ തന്നെ ഇപ്പം ഇവിടെ കിലോക്ക് നാനൂറ് നാനൂറ്റി അമ്പത് രൂപ വരെ വിലയുണ്ട് ഇവിടത്തെ വലുത് ചെറുതാണെങ്കിലും മുന്നൂറ് രൂപക്ക് കിട്ടും അത് ഓരോ സീസൺ അനുസരിച്ചാണ് കരിമീൻ കൂടുതൽ കിട്ടുന്ന സമയം ആണെങ്കിൽ അത് അനുസരിച്ച് വില മാറും പിന്നെ കൊഞ്ച് കിട്ടും കൊഞ്ചിന് എന്നു പറഞ്ഞാൽ ഇപ്പം സീസണല്ല ഇപ്പം അറുനൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ വിലയുണ്ട് സീസണായി കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു കൊഞ്ച് കമ്പനിക്കരൊക്കെ നേരിട്ട് വരും എക്സ്പോർട്ടിങ്ങിന് അന്നേരം കൊഞ്ചിന് വീണ്ടും വില കൂടും അത് ആ സീസണിൻ്റെ ഇതു പോലെയാണ് സംഭവം പിന്നെ വേറെ ചെറിയ മൽസ്യങ്ങളൊക്കെയുണ്ട് ഈ മൊരശ് പൂമി കാണമ്പ അതേപോലെയുള്ള മീനുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ കരിമീനിനാണ് വരുന്നത് കരിമീനിനെ പോലെ കൊഞ്ചിനും വരുന്നുണ്ട് അപ്പുറത്തു നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ കൊഞ്ച് കരിമീനും ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് പിന്നെ ഔഷധ ഗുണമുള്ള ഈ വരാല് വരാലൊന്നും നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണ കിട്ടില്ല അതിന് അത് ഭയങ്കര വിലയാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഒരു കിലോ വരാലിന് അത് ഈ രോഗികൾക്ക് അതൊക്കെ പറ്റിയതാണെന്നാണ് പഴയ ഒരു വെപ്പ് അതുപോലെ പിന്നെ മറ്റേ ഇതുണ്ട് ഈ തോടുകളിൽ നിന്ന് കിട്ടുന്ന കാരി കല്ലട അതേപോലെയുള്ള നാട്ടു മത്സ്യങ്ങളുണ്ട് അതിനൊക്കെ ആവശ്യക്കാരുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ കിട്ടല് തീരെ കുറവാണ് ഏറ്റവും കൂടുതലും ഇപ്പോൾ കിട്ടികൊണ്ടിരിക്കുന്നത് കരിമീനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും അതിനു തന്നെയാണ് ന്യായമായ വില വിലക്ക് ഇപ്പം കൂടുതൽ നിങ്ങൾ പോരാത്തതിന് ന്യായമായ വിലയ്ക്കാണ് ഇവിടെ എല്ലാവർക്കും ലഭിച്ചു കൊണ്ടിരിക്കുന്നത്